നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്താ കൂടുതൽ പരിശീലനം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ സ്കൂളുകളിൽ ചെയ്യുന്നത് കൂടുതൽ അധ്യാപകരെ കൊണ്ടു വരും അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും പാഠപുസ്തകങ്ങൾ നൽകാറുണ്ട് അതൊക്കെ ഒരു വികസനം തന്നെയാണ് പിന്നെ എന്താ പറയുക നല്ല നോളജുള്ള കൂടുതൽ നോളജുള്ള അധ്യാപകരെ എക്സ്പീരിയൻസുള്ള അധ്യാപകരെ കൂടുതലായിട്ടും കൊണ്ടു വരാൻ ശ്രമിക്കും അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉള്ളത് അതുപോലെ തന്നെ എന്താ പറയുക അതുകൊണ്ടു തന്നെ മികച്ച ഒരു ഭൂരിപക്ഷം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കിട്ടാറുണ്ട് അപ്പോൾ അധ്യാപകരുടെ ഉയർന്ന പരിശീലനം കൊണ്ടുതന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടു തന്നെ പഠന വസ്തു എല്ലാ കുട്ടികൾക്കും ഒരു കുട്ടിക്ക് ഓരോ കുട്ടികൾക്കും ഓ പുസ്തകം ഇപ്പോൾ ഏഴ് പുസ്തകം ഉണ്ടെങ്കിൽ എഴു പുസ്തകവും ഒരു കുട്ടിക്ക് കൊടുക്കും അപ്പം അങ്ങനെ എല്ലാ കുട്ടികൾക്കും ഗവൺമെൻറ് നല്കുന്നതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് അവർക്ക് പഠിക്കാൻ കഴിയും അതുകൊണ്ടു തന്നെ വിദ്യാഭ്യാസം ഉയർത്താൻ കഴിയും